ഇപ്പോൾ കർഷകർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് നെല്ല് വിത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ലവണ്ണം വായു സഞ്ചാരം കയറുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ അത് മുളയ്ക്കുള്ളൂ അപ്പം നെല്ല് മുളച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എന്താണ് പറയുക വിതയ്ക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ അപ്പം നല്ലവണ്ണം വായു സഞ്ചാരം കേന്ദ്രു കയറുന്ന കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങൾ നമുക്കപ്പോൾ പുറത്ത് ഏത് നേരവും എടുത്തുവയ്ക്കാൻ പറ്റില്ല കാരണമെന്താണ് വെച്ചുകഴിഞ്ഞാൽ മോഷണം പോവുവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും പിന്നെ നെല്ല് കേടായി പോകും ആവിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഒരു ഇതാണ് അപ്പം നമുക്ക് നല്ലൊരു വായു സഞ്ചാരം കയറുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നെല്ല് മുളയ്ക്കാനും നമുക്ക് അത് വിതയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കോഴി ഫാം നടത്തുന്നവർക്ക് നല്ല രീതിയിൽ ഉള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ പുറമേയുള്ള ബാക്കി ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം സ്ഥലങ്ങൾ നോക്കി എടുക്കണം കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി ഫാം നമുക്ക് അടുത്തുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളും ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നാട്ടുകാരും പറയും നമ്മൾ അവരെ അവർ കംപ്ലൈൻറ്റ് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൂടുതൽ ആണ് പിന്നെ ഈ കോഴി ഫാം വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വായു സഞ്ചാരം കയറുന്നതായിരിക്കണം കാരണമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികൾ വായു നമുക്ക് ഇപ്പം എന്താണ് പറയുക ശ്വാസം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോവില്ലേ അതേപോലെ കോഴികളും ചത്തു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സ്ഥലങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല